ചെമ്മീൻ സിനിമ തകഴിയുടേതാണ് പിന്നീട് ഇത് സിനിമയായി മാറി ഇതൊരു പ്രണയ കഥയാണ് ഇതിന് അകത്തെ മൂന്ന് കഥാപാത്രങ്ങളുണ്ട് കറത്തമ്മയായിട്ട് ഷീലയും പരീക്കുട്ടിയായിട്ട് സത്യനും കൊച്ചു മുതലാളി ആയിട്ട് മുതലാളിയായി മധുവാണ് അഭിനയിച്ചിരിക്കുന്നത് ഇത് ഒരു നോവലായി മാറിയിട്ടുണ്ട് നല്ല പുസ്തകമാണ് ഇത് കടപ്പുറത്തെ കഥയാണ് ഇതിൻ്റെ കോപ്പി എൻ്റെ കൈയിലുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനത് വായിക്കാറുണ്ട് പിന്നെ ഈ സിനിമയിലൂടെ ഒത്തിരിയേറെ പണ്ടത്തെ ഇപ്പോഴത്തെ സിനിമ പോലെ അല്ല പണ്ടത്തെ സിനിമ കഥയുള്ള സിനിമയാണ് ഇന്നത്തെ സിനിമയെന്ന് പറയുന്നത് പല മക്കളും വിശുദ്ധി പോലും നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാൽ പഴയ സിനിമയെന്ന് പറഞ്ഞാൽ കുടുംബ പരമായിട്ട് പോകാനും കാണാനും എല്ലാം സാധിക്കുന്ന സിനിമയാണ് ഇതിലൂടെ നമ്മൾ നമ്മൾക്ക് തന്നെയും പണ്ടത്തെ കാലത്ത് ടീവീ ഒന്നുമില്ലായിരുന്നു വീട് വീടുകൾ വീടുകളിൽ സിനിമ കോട്ടയിൽ പോയാണ് സിനിമ കാണാറുള്ളത് അങ്ങനെ ഒത്തിരിയേറെ കുടുംബ പരമായിട്ടുള്ള കാര്യങ്ങൾ മനസിലാക്കാൻ ഇതിലൂടെ സാധിക്കും

മറ്റുള്ള മക്കൾക്കും പണ്ടത്തെ മക്കൾകൊക്കെ കുടുംബ ജീവിതത്തെ പറ്റി മനസിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സിനിമയാണ് ഇത് നോവലിലൂടെയും നല്ല നല്ല കാര്യങ്ങളാണ് ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നത് ഇതു പോലെയുള്ള സിനിമകൾ ഇനിയും പുറത്തിറങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു